ഹായ് ഹലോ പിന്നെ ഞാൻ ഒരു പിന്നെ ആവശ്യമായിട്ട് നമ്മൾ ഒരു ടൂറ് പ്രോഗ്രാമായിട്ട് ഒരു ഒരു മാസത്തേക്ക് ഇവിടെ യൂറോപ്പിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നെ എൻ്റെ പിന്നെ നമ്പരെന്ന് പറയുന്നത് നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ ടു ഫോർ വൺ സിക്സ് എയിറ്റ് എന്നാണ് അപ്പം ഇത് പിന്നെ വോഡാഫോണ്ൻ്റെ സിമ്മാണ് അപ്പോൾ ഇതിന് ഒരു മാസം പിന്നെ ഈ എത്രയുടെ പിന്നെ പ്ലാനാണ് ഞാൻ ഇതിൽ പിന്നെ പ്ലാനാണ് ഞാനെടുക്കേണ്ടത് അപ്പോൾ അത് പിന്നെ റി പിന്നെ നമ്മുടെ പിന്നെ റോമിങ്ങ് പിന്നെ എനിക്ക് പിന്നെ കോൾ ചെയ്യണം പിന്നെ എനിക്ക് തിരിച്ച് പിന്നെ അപ്പമാരെങ്കിലും എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ആ ആ കോളെനിക്ക് എടുക്കാനായിട്ട് സാധിക്കണം അപ്പമതിനെല്ലാം കൂടി ചേർത്ത് എത്ര രൂപയുടെ പിന്നെ ഇത് ചാർജ് ചെയ്യാം